എനിക്ക് പൂന്തോട്ടം പരിപാലിക്കാൻ എനിക്ക് കൂടുതൽ ചിലവുകളൊന്നും വന്നട്ടില്ല കാരണം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ പച്ചക്കറീടെ തൊലിയും പച്ചക്കറീടെ വേസ്റ്റും ഉള്ളിത്തൊലിയും ഉള്ളീടെ വേസ്റ്റൊക്കെ ഇട്ട് ഒരു ബക്കറ്റ് വലിയ ബക്കറ്റിലിട്ട് ഇട്ട് വച്ചിട്ട് അത് അതിൽ വെള്ളം വാർന്ന് വച്ചിട്ട് അത് ജൈവ വളമായിട്ട് ഞ ഉപയോഗിക്കും അതിൻ്റെ കൂടെ കോയികാഷ്ട്ടവും ഉപയോഗിക്കും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ചെടികൾ സംരക്ഷിക്കുന്നത് പിന്നെ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത് സോപ്പ് വെള്ളം അതേപോലെ പുകയില കഷായം അതൊക്കെ നമ്മൾ ചെടികൾക്ക് പുഴുക്കളും ചെടികളിലുണ്ടാകുന്ന പുഴുക്കളും കാ ചായ്കളും ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടീട്ട് അത് തളിച്ച് കൊടുക്കും അത് തളിച്ച് കൊടുക്കുമ്പോൾ എല്ലാ ജന്തുക്കളും ഇല്ലാണ്ടാവും അതുമ്മേ ചായ്ന്നൊക്കെ ഉണ്ടായാൽ ചെടിയൊക്കെ മൊരടിച്ച് നിന്ന് പോവും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടീട്ട് ഈ ജൈവ കീടനാശിനി ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ചിലവ് മാത്രമേ എനിക്ക് കൂടുതലായിട്ട് വരുള്ളൂ അല്ലാതെ ഞമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജൈവവളം നല്ല ഇതാണിനും അത് എല്ലാത്തിനും ഉപയോഗിക്കാനും പറ്റും ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനത് ഇട്ട് കൊടുത്തിട്ട് ചെടികൾക്കൊന്നും മോശമൊന്നും ഉണ്ടായിട്ടില്ല എല്ലോം നല്ല രീതിയിൽ തന്നെ വളർന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജൈവവളം ഉണ്ടാക്കുക ഞമ്മടെ വീട്ടിൽ ഉണ്ടാക്കേണ്ടത് ഏറ്റോം നല്ല ജൈവ വളമാണ് അത് എല്ലാവർക്കും ഉണ്ടാക്കാം എല്ലാവരും ഉപയോഗിക്കുക അങ്ങനത്തൊരു ഇതിലാണ് ഞാൻ കേറ്റിക്ണ്ട് ഞാനങ്ങനെയാണ് ഉണ്ടാക്കലും ചെയ്യലും ഒക്കെ അതുകൊണ്ട് എനിക്ക് എൻ്റെ ചെടികൾക്ക് നഷ്ട്ടങ്ങളൊന്നും വന്നിട്ടില്ല മോശമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എല്ലോം നല്ല രീതിയിൽ തന്നെ വളർന്ന് ഉണ്ടായിരുന്നോണ്ട്